അതെ അതെയ ഡീലറാണ് ഇതാരാണ് ആ കോഴിക്കോടല്ലേ കോഴിക്കോട് കോഴിക്കോടന്നല്ലേ വേണ്ടത് നമ്മൾ കോഴിക്കോട് ഏത് ഭാഗത്താണ് ഓക്കെ ഓക്കെ നിങ്ങൾ നിങ്ങൾ കോഴിക്കോട് ടൗണിലാണോ വീട് നോക്കുന്നത് ഓക്കെ കോഴിക്കോട് മാവൂര് ഭാഗത്തക്കായിട്ട് കോ കോട്ടേസ് അവൈലബിളാണ് അത് കോട്ടൈ്സ് ആണോ നോക്കണത് അതോ വില്ലയാണോ നോക്കണത് ഏത് ടൈപ്പാ നോക്കണത് കോട്ടേ്സ് സ്റ്റാർട്ടിങ്ങ് പതിനായിരത്തിന് സ്റ്റാർട്ട് ചെയ്യണത് ഉണ്ട് അത് പിന്നെ അതിൽ രണ്ട് റൂമ് വരുന്നുണ്ട് പിന്നെ അതിൽ സ്റ്റാർട്ട് ചെയ്യണത് ഉണ്ട് പിന്നെ വലിയ സെയിം റേറ്റ് തുടങ്ങണത് ഉണ്ട് പിന്നെ വില്ല വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഓക്കെ

ഈ എത്ര റൂമാണ് വേണ്ടി വരുന്നത് രണ്ടോ അതോ അതിൽ കൂടുതൽ രണ്ട് റൂമ് സ്റ്റാർട്ടിംഗ് പതിനായിരം ഉള്ള ഉണ്ട് മാവൂര് അവിടെ അ ഭാഗത്തായിട്ട് ഓക്കെ അതോ എങ്ങനെ കോ കോട്ടേസിലാ കോട്ടേസിലാണ് റൂമ് നോക്കുന്നത് അതോ സെപ്പറേറ്റ് വില്ലയിലാണെങ്കിൽ സെയിം റേറ്റിൽ സ്റ്റാർട്ട ചെയ്യണുണ്ട് പക്ഷേ ഒന്നുകൂടി ബെറ്ററാവുക ഇരുപതിനായിരം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണ ഫാമിലി വില്ലകളുണ്ട് വൃത്തി ആ വൃത്തിയൊക്കെ ഉണ്ട് ഓക്കെ ഞാൻ ഫോട്ടോ ഈ നമ്പറൽ വേണമെങ്കിൽ വാട്സആപ്പ് ചെയ്ത് തരാം ഓക്കെ നിങ്ങൾക്ക് ആ ഞാൻ നിങ്ങൾ നാളെ ഫ്രീ ആണോ അങ്ങനെയാണെങ്കിൽ രാവിലെയായിരിക്കും മെസ്സേജ് അയച്ചാൽ കോഴിക്കോട് കോഴിക്കോട് ഉണ്ടാവും അങ്ങനെ വന്നിട്ട് നമുക്ക് പോയി കാണാം ഏതാണ് ഇപ്പോൾ കോട്ട കോട്ടേഴ്സാണോ കാണാൻ കാണേണ്ടത് അതോ വില്ലയാണോ വേണ്ടത് ഓക്കെ ഫാമിലി ആ ഇല്ലല്ല ഫാമിലിക്കുള്ള ഇതല്ലേ നോക്കണത് ഓക്കെ എന്നാൽ നാളെ കാണാം ഈ നമ്പറിൽ വിളിച്ചാൽ മതി